മുണ്ടക്കയം അമ്പത്തഞ്ചാം മൈല് കടുവാപ്പാറ പുല്ലുപാറ മുറിഞ്ഞപുഴ പീരുമേട് ആങ്ങാട് മേലോരം ചെറുവിളക്കുളം കണയങ്കാൽ കുട്ടിക്കാനം പാമ്പനാറ് വണ്ടി ആ വണ്ടിപ്പെരിയാറ് പാല ഈരാട്ടുപേട്ട കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം തിരുവനന്തപുരം